രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരം പതിനെട്ട് പതിനൊന്ന് രണ്ടായിരം പതിനാറ് അഞ്ച് രണ്ടായിരത്തി അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്